നമ്മുടെ രാജ്യത്തെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ലഭ്യമായിട്ടുള്ള ഒരുപാട് ആശുപത്രികളും കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ട് പക്ഷെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെയാണ് നമുക്കിപ്പോൾ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ നമ്മൾക്ക് എന്തായാലും എന്തെങ്കിലുമൊരു അസുഖം കാര്യങ്ങളുമൊക്കെ വന്നാൽ ഗവണ്മെന്റ് ആശുപത്രി മാത്രം ആശ്രയിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോഴെണ് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഗവണ്മെന്റ് ഹോസ്പിറ്റലെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് നമ്മൾ കൊണ്ടുവന്നവർ ഭയങ്കര വലിയ ആൾക്കാർ ആയിരിക്കും നമ്മുടെ അച്ഛനും അമ്മയൊക്കെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പക്ഷെ അവർക്ക് അവരാരുമല്ല അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അത്യാസന്ന നിലയിലൊക്കെ ആണെങ്കിലും അവരെ നോക്കാൻ അതായത് ഒരുപാട് പിന്നെ രോഗികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആൾക്കാരെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ ചെലവാക്കുന്നതുകൊണ്ട് തന്നെ അവർ നല്ലോണം ഹോസ്പിറ്റലുകളിൽ നോക്കും പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മികച്ച അതായത് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളൊക്കെയുണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഗവണ്മെന്റായിട്ടാണെങ്കിലും